ഞാൻ നക്ഷത്ര നിരീക്ഷണമൊക്കെ നടത്തിയെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് കൂടുതലായിട്ടും നക്ഷത്ര നിരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ എസ് എസിൻ്റെ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാമ്പിന് പോയ സമയത്ത് നമ്മൾക്ക് രാത്രി ഇങ്ങനെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ആ സമയങ്ങളിൽ അപ്പോൾ എന്നോട് സാർ പറഞ്ഞു എടാ എല്ലാവരും നോക്ക് മേലോട്ട് ഓറിയോണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേട്ടക്കാരനെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാനൊക്കെ പറഞ്ഞിരുന്നു അന്നാണ് ഞാനാദ്യമായിട്ട് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഒന്നും ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു ഈ ബുക്കുകളിലൊക്കെ വായിച്ചതല്ലാണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോൾ അതിനകത്തിങ്ങനെ കണ്ടു അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു നല്ല വേട്ടക്കാരനെല്ലാം നല്ല തിളങ്ങി നിൽക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടതെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാണണമെന്നൊക്കെ ആഗ്രഹിച്ചത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ നോക്കിയത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയൊക്കെയാണ് നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ട് നമുക്ക് കൂടുതലായിട്ടും വേനൽക്കാലങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നതെന്ന് പറയാം ഒരു നല്ല ഒരു നല്ലൊരു ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ വിസിബിൾ ആയി തുടങ്ങും